ഞാന് വാങ്ങിയിട്ടുള്ള ആ ഡ്രസ്സ് നല്ല അടിപൊളി ഡ്രസ്സാണ് കെട്ടോ കാരണം എന്താണെന്നു വച്ചുകഴിഞ്ഞാല് ആ പൈസക്കുള്ളൊരു നല്ല മെറ്റീരിയലാണത് അതുപോലെതന്നെ അതിൻ്റെ കോളിറ്റി ഭയങ്കരമാണ് ഫാബ്രിക്ക് കോളിറ്റി നല്ലതാണ് പിന്നെ എനിക്ക് നന്നായിഷ്ടപ്പെട്ടു ഞാന് സാധാരണ നമ്മള് അങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോള് നമുക്ക് ഈ ഒരു കുറഞ്ഞ പ്രൈസില് നമുക്ക് ഇത്രയും നല്ലൊരു കോളിറ്റിയില് സാധാരണ പ്രൊഡക്റ്റ് ഈ ഷർട്ട്സൊന്നും കിട്ടാറില്ല വസ്ത്രങ്ങള് പ്രത്യേകിച്ചും കിട്ടാറില്ല പിന്നത് ഞാനലക്കി നോക്കി അലക്കി നോക്കിയപ്പോഴും ആ ഒരു കളറൊന്നും ഇളകുന്നില്ല നല്ല ഗുഡ് കോളിറ്റി തന്നെയാണ് അപ്പോള് ഈ പ്രൊഡക്റ്റില് ഞാന് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡാണ് കാരണം അത്രയും ഒരു ആ കളേഴ്സിലൊക്കെ ഞാൻ സാധാരണ നമ്മള് വാങ്ങിക്കുമ്പോള് നമ്മള് നോക്കുന്ന കളറും അത് നമ്മള് പുറത്ത് വന്നിടുമ്പോള് അത് വേറെ കളറായിട്ടൊക്കെയാണല്ലോ പക്ഷേ നമ്മുടെ കരുതിയ കളര് തന്നെയാണ് നമുക്കതില് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ നമുക്കതൊരു അടിപൊളിയായി തോന്നി അതുകൊണ്ട് പ്രൊഡക്റ്റ് അടിപൊളിയാണ്